ഞാൻ ജോലി ചെയ്യുന്നത് സൈറ്റ് സൂപ്പർവൈസർ ആയിട്ടാണ് എൻ്റെ സൈറ്റിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റ് ജോലിക്കാരും ഉണ്ടായിരിക്കും എപ്പോഴും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംഘർഷങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് സൈറ്റ് സൂപ്പർവൈസർ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ചോദ്യങ്ങളും കോൺട്രാക്ടർമാരും അതിൻ്റെ ഓണർമാരും എന്നോട് തന്നെ ചോദിക്കും ഒരുപാട് സംഘർഷങ്ങളും പ്രയാസം നിറഞ്ഞതാണ് സൈറ്റ് സൂപ്പർവൈസറിൻ്റെ ജോലി പക്ഷേ ഞാൻ എല്ലാം കൃത്യമായി പ്ലാനിങ്ങിലൂടെയും കൂടുതൽ വിവരിച്ച് കൊണ്ടും അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടും അച്ചടക്കത്തോട് കൂടിയും കൃത്യനിഷ്ഠതയോട് കൂടിയും ആ ജോലി ചെയ്യുന്നു അതുപോലെതന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെയും എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെയും വളരെ സന്തോഷത്തോട് കൂടി വർക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ വളരെ മികച്ച രീതിയിൽ തന്നെ ആ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ സൈറ്റിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടായാലും ഞാൻ പറഞ്ഞാൽ അവിടെ തർക്കങ്ങൾ എല്ലാം മാറ്റി അതിനുള്ള പരിഹാരം ഞാൻ കാണുന്നു